ആപ്പുകളില്ലാതെ പുതിയ ലോകത്ത് ജീവിക്കാൻ ഇപ്പോൾ പാടുപെടുന്ന ഒരു തലമുറയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പില്ലെങ്കിൽ നമുക്ക് യാത്ര അത്രയ്ക്കും ദുഷ്കരമായിട്ടുണ്ട് പണ്ട് യാത്ര ചെയ്യുമ്പോൾ പലരോടും ചോദിച്ചും പറഞ്ഞുമൊക്കെ ഇതുപോലെ സമയമെടുത്ത് ഇപ്പോൾ കുട്ടികളിപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ കൊടുത്ത് യാത്ര തുടങ്ങിയാൽ ചെല്ലുന്നത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഈ പുതിയ ലോകത്തിൽ ആപ്പുകൾ നമ്മളെ ഒത്തിരി പല കാര്യങ്ങളിലും അടുത്തതായിട്ട് നമുക്ക് ഈ പിന്നെ എഴുന്നേൽക്കാനായിട്ട് റിമൈൻഡറ് റിമൈൻഡേഴ്സ് നമ്മുടെ പല പല കാര്യങ്ങൾ നിത്യജീവിതത്തിൽ നടക്കേണ്ട പല കാര്യങ്ങളും കൃത്യതയോടെ ചെയ്തു തീർക്കാൻ പറ്റിയ പല ആപ്പുകളും റിമൈൻഡേഴ്സ് പിന്നെ ഫയൽ മെയിൻ്റനൻസ് ഇത് എല്ലാം നമുക്ക് ആപ്പ് വഴി ചെയ്യാം ട്രെയിൻ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ട്രെയിൻ സർവ്വീസ് ബുക്കിംഗും യാത്രയൊക്കെ പല പല ആപ്പുകളിലൂടെ നമുക്ക് ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത് നമുക്ക് നമ്മുടെ നമുക്ക് വളരെ സൗകര്യമായിട്ട് ഓരോ സ്ഥലത്തും നമുക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചേരാനായിട്ട് ഈ നവയുഗത്തിലെ ആപ്പുകൾ നമ്മൾ ഉപയോഗം നമുക്ക് സഹായകരമായിട്ടുണ്ട് പിന്നെ പഠിക്കാനായിട്ടും ഉപരിപഠനത്തിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും എല്ലാം പല മത്സരബുദ്ധി പരീക്ഷകൾക്ക് പാസ്സാകാനായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ആപ്പുകൾ ഇങ്ങനെ പല ആപ്പുകളും നമ്മളെ നമ്മുടെ ജീവിതത്തിലെ വളരെ ഉപകാരപ്രദമായിട്ട് ഇപ്പോൾ ഈ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ ഇതിന് അഡിക്ഷനാണോ എന്നു ചോദിച്ചാൽ പറയാനൊക്കത്തില്ല പക്ഷേ ആപ്പുകൾ നമ്മുടെ ജീവിതത്തെ വളരെ ആയാസകരമായ രീതിയിലുള്ള കൃത്യനിർവഹണത്തിന് നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ടുള്ള ആപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് പ്രാർത്ഥനാ ബുക്കുകൾ തപ്പിയിട്ട് ഓടി നടക്കേണ്ട ആവശ്യവില്ല പ്രാർത്ഥന ബുക്കുകൾ നമുക്കെല്ലാം ചിട്ടപ്പെടുത്തി പ്രാർത്ഥനയും പാട്ടും എല്ലാം ഒത്തിരി ആപ്പുകളും ഇപ്പോൾ അവൈലബിളാണ് ഇപ്പോൾ ആപ്പുകൾ കൂടി കഴിഞ്ഞപ്പോൾ ഏതാണ് നല്ലതെന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ നമ്മൾ സാധാരണക്കാർക്ക് ഉള്ളു എന്നാൽത്തന്നെ ആപ്പിൽ പല വേണ്ടാത്ത ആപ്പുകളുപയോഗിച്ച് ആപ്പ് ആപത്തിൽ ചാടുന്ന സാധാരണക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആപ്പുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷേ വിവേകപരമായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഉപയോഗപ്രദമാണ് വിവേകശൂന്യമായിട്ട് ആപ്പുകളെ ഉപയോഗിച്ചാൽ ആപത്തിൽ തന്നെ ചെന്നു ചാടിക്കുന്ന ആപ്പായി തന്നെ മാറുന്ന ആപ്പുകളും നമുക്ക് അറിയാം അതുകൊണ്ട് ഈ യുഗത്തിൽ മൊബൈൽ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ അമിതമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ വിവേകപരമായിട്ട് ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ച് വിവേകപരമായിട്ട് നമുക്ക് ആപ്പിലൂടെ പലപല നിത്യജീവിതത്തിനാവശ്യമായ പല കാര്യങ്ങളും നമുക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് താങ്ക് യു